ഞാൻ വായിച്ചൊരു ശ്ലോകം എന്താണെന്ന് വെച്ചാൽ ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്നാണ് അതിന്റെയർത്ഥം വരുന്നതെന്താന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഉള്ള എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടെ ഒരുമയോടെ ഇരിക്കുക നന്നായി ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം